ഞാനേ പിന്നെ പെയിൻറ് അടിക്കുന്ന പെയിൻ്റർ അല്ലേ ആ ഞാനേ എനിക്ക് വീടൊന്ന് പേയിൻറ് അടിക്കണ്ടായിരുന്നു അപ്പം അതിനെ കുറിച്ച് ഒന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് നം നമ്മളേ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് അപ്പോൾ അതിൽ ആ കളർ മാറ്റുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ആ കളർ തന്നെ സെയിം കളർ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലും ഒന്ന് എക്സ്സ്റ്റീരിയറിൽ വേറെ ഒന്നും അല്ലേ കളർ പേയിന്റ് നമ്മൾ ഉപയോഗിക്കുക അത് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് ഉള്ളിൽ അടിക്കുന്ന പേയിൻറിൻ്റെ ക്വാളിറ്റിയും പുറത്തടിക്കേണ്ട പേയ്ൻറിൻ്റെ ക്വാളിറ്റിയും വെവ്വേറെ അല്ലേ മഴയും കാര്യങ്ങളൊക്കെ പുറത്ത് ഉള്ളത് കൊള്ളുമ്പോൾ ആ പേയിൻറ് കുറച്ചുകൂടെ നല്ല എക്സ്സ്റ്റീരിയർ പേയിൻറ് കുറച്ചുകൂടെ നല്ലത് എടുക്കേണ്ടി വരില്ലേ ആ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേഗം ഞങ്ങളിവിടെ വീട്ടിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി തയ്യാറാക്കി തരാൻ സമയം ഉണ്ടാവില്ല ഞങ്ങൾ രാവിലെ പോവുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് പെയ്ൻ്റർമാർ വരുമ്പം കുറച്ചധികം പേർ വന്നിട്ട് കരാർ ആയിട്ട് എടുക്കുമോ നിങ്ങൾ എന്നാൽ പിന്നെ വേഗത്തിൽ പണി കഴിയുമല്ലോ ഭക്ഷണം ഒന്നും തരാൻ കഴിയില്ല നമ്മൾ എല്ലാവരും രാവിലെ ജോലിക്ക് പോവുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ പിന്നെ എത്ര നിങ്ങളുടെ സം ഇത് എമൗണ്ട് എങ്ങനെ വരും പെയിൻറ് പെയിൻറ് നിങ്ങൾ കൊണ്ടുവരുമോ അതോ ഞങ്ങൾ മേടിച്ച് തരണോ ആ ആ അതിൻ്റെ കൂടത്തിൽ മതിലിൽ കൂടെ പെയിന്റ് അടിക്കണം എന്നാൽ നൽ നല്ല ക്വാളിറ്റി ഏഷ്യൻ പെയിന്റ് തന്നെ ആയിക്കോട്ടെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല കൊർ ഈട് നിൽക്കുമല്ലോ അല്ലേ കുറച്ച് അധികം കാലം ക്വാളിറ്റി ആവും കൂടുന്നത് എന്ന് അപ്പം അത് മതി അത് മതി കേട്ടോ ആ എന്നാൽ നിങ്ങൾ അടുത്ത ആഴ്ച്ച എന്തായാലും വരണം ഏ എത്ര നിങ്ങൾ ശമ്പളം പൈസ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി അങ്ങനെ ചെയ്യാം ഓക്കെ വരാതിരിക്കരുത് കേട്ടോ